ഒരു ചിത്രകാരനെ സംബന്ധിച്ച് ചിത്രം വരയ്ക്കണമെങ്കിൽ അവനൊരു പ്രതലമാവശ്യമാണ് അവന്റെ ഏറ്റവും വലിയ പ്രതലമെന്നു പറയുന്നത് ഒരു ചിത്രകാരൻ്റെ പ്രതലമെന്ന് പറയുന്നതവൻ്റെ മനസ്സാണ് ആ മനസ്സിൽ പ്ര യ്ന്ന ചിത്രമാണ് അവൻ്റെ കൈകളിൽ വിരൽത്തുമ്പിലൂടെ പ്രതലത്തില് ഒരു ചിത്രമായിട്ട് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നത് ആ ചിത്രം വരയ്ക്കുന്നതിന് ആ ഉള്ളിലേക്ക് എടുക്കുന്ന ആ ചിത്രത്തെ തനതായതിന്റെ തനതായ ഭാവത്തിലും രൂപത്തിലും ആ മനക്കണ്ണിലൂടെ കണ്ടിട്ടാണ് അവന് അതിനെ ക്യാൻവാസിലേക്ക് പകർത്തുന്നത് ഈ ചിത്രം സാധാരണ സംഭവിക്കുന്ന ചില വീഴ്ചകള് എന്നു പറയുന്നത് ആ ചിത്രകാരന് ശരിക്കും ആ ചിത്രത്തേ അതിന്റേതായ രീതിയില് ശരിക്കും ഇഴ കീറിമുറിച്ച് അതിനെ കാണാൻ സാധിക്കാതെ വരുന്നതുകൊണ്ടാണ് പല ചിത്രങ്ങളും വൈകല്യമുള്ളതായിട്ട് പൂർണ്ണ രൂപത്തിലുമാകാതെ പോകുന്നത് അത് നമ്മുടെ ഉള്ളിൻ്റെയുള്ളിലേക്കതിനെ ആവാഹിച്ചെടുത്ത് തന്റേതായ സംഭാവനകളും അതിന്റെയകത്തു നൽകി ആ മനക്കണ്ണിലൂടെ ഉൾക്കാഴ്ച്ചയിലൂടടെ കാണുന്ന ആ ചിത്രത്തെ ക്യാൻവാസിലേക്ക് പകർത്തിക്കഴിയുമ്പോൾ അത് ജീവനുള്ള ചിത്രമായിട്ട് മാറുന്നു നമ്മള് പലപ്പോഴും അത് സാധിക്കാതെ വരുന്നത് നമ്മുടെ കാഴ്ച്ചയുടെ ആ കുറവുകൊണ്ടാണ് നമ്മളതിനെ എപ്രകാരം കാണുന്നു ആ നമ്മളതിനെ അതിൻ്റെ നല്ലവശങ്ങളും ചീത്തവശങ്ങളുമെല്ലാം മനസ്സിലാക്കി അതിനെ എങ്ങനെ മികവുറ്റതാക്കാമെന്ന് അവൻ്റെ ഉൾക്കണ്ണിലൂടെ കണ്ടിട്ട് അതിനെ പകർത്തുമ്പോൾ ആ ചിത്രം തീർച്ചയായിട്ടും വളരെ ഭംഗിയുള്ള നല്ല ഒരു ചിത്രമായിട്ട് മാറും അതിനെ ഒരു നല്ല ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലെയൊരു പരിശീലനമാവശ്യമാണ് ചിത്രം പല രീതിയിൽ വരക്കാറുണ്ട് പെൻസില് കൊണ്ടുള്ള വര പെൻസിൽ ഡ്രോയിങ്ങെന്നു പറയും അതുപോലെ ഛായാചിത്രങ്ങള് എണ്ണച്ചായാചിത്രങ്ങളുണ്ട് ജലച്ചായചിത്രങ്ങളുണ്ട് അത് ഒരോ ചിത്രങ്ങളും അതിൻറ്റേതായ രീതിയില് പകർത്തണമെങ്കിൽ അതിനു കൊടുക്കുന്ന നിറക്കൂട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ആ നിറക്കൂട്ട് കൈകാര്യം ചെയ്യാനുള്ള വൈദഗ്ധ്യം ആ ചിത്രകാരന് ലഭിച്ചിരിക്കണം അത് പരിശീലനത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് അതിൻ്റെ കൂടെ തനതായ കഴിവുങ്കൂടെ ചാലിച്ചെടുക്കുമ്പോൾ ആ ചിത്രങ്ങൾ നല്ല ജീവനുള്ളതായിട്ടു മാറുന്നു ഇതാണൊരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ വേണ്ടകാര്യങ്ങൾ പരിശീലനം വളരെ അത്യാവശ്യമാണ് ആ കൈവിരളുകളുടെ വഴക്കം എന്ന് പറയുന്നതാണ് ഒരു ചിത്രകാരനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യം അതുപോലെ ക്ഷമ വളരെ ആവശ്യമുള്ളൊരു കലാരൂപമാണ് ചിത്രരചനായെന്നു പറയുന്നത് ക്ഷമയോടെ ഇരുന്ന് സാവകാശം മറ്റു ചിന്തകളൊന്നും ഇല്ലാതെ ഉൾക്കാഴ്ച്ചയോടുകൂടി ഉൾക്കണ്ണുകളുടെ കാഴ്ച്ചയോടുകൂടി പകർത്തിയെടുക്കുമ്പോൾ ഒരോ ചിത്രങ്ങളും അതിൻറ്റേതായ തനതായ ഭംഗിയുള്ളതായി ജീവനുള്ളതായിട്ടു മാറുന്നു